ഞങ്ങളുടെ സ്ഥലത്തെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്തെ അല്ല പൊതുവെ ഈ ഇടുക്കി അല്ലേ കേരളത്തിൽ വിവിധ തരം കലക കലകളും കരകൗശല വസ്തുക്കളും ഉണ്ടല്ലോ കലകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ മോഹിനിയാട്ടം തെയ്യം കഥകളി അതുപോലെയൊക്കെ ഉള്ള ഒരുപാട് കലകൾ നമ്മുടെ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഏ ഏതെങ്കിലും വിദേശ യാത്രക ചെയ്യുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളതൊക്കെ അവതരിപ്പിച്ച് കാണിക്കുമല്ലോ ആ അതൊക്കെ അതൊക്കെ ഓരോ നാട്ടിലും ഓരോ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സിനിമയിലക്കെ വന്ന് സിനിമകളിലും പരസ്യങ്ങളിലൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയുർവേദം അതായത് വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ഹോം റെമഡീസായിട്ടുള്ള അത് നമ്മളോരോ ഫേസ് മാസ്ക്കുണ്ടാക്കുന്നതും അല്ലെ എന്തെങ്കിലും സോപ്പു പോലെയുള്ള സാധനങ്ങളും ഇതൊക്കെ വീടുകളിലുണ്ടാക്കി നമ്മൾ പരസ്യങ്ങളിലാക്കി ചെയ്യുക ചെയ്യാറുണ്ടല്ലോ അതുപോലെ കരകൗശല വസ്തുക്കളെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശിൽപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ഓരോ ക്രാഫ്റ്റ് ചെയ്യുന്നതും ചാർട്ട് പേപ്പർ ഉപയോഗിച്ചോരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതൊക്കെ നമ്മൾ ഫോൺ വഴിയൊക്കെ യുട്യൂബിലും ഇതൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ അതൊക്കെ ഒരു പരസ്യ രൂപത്തിലും സിനിമാ സിനിമയായിട്ടൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലായിട്ട് പ്രത്യേകിച്ചങ്ങനെ ഒരു ഇതായിട്ടില്ല മൊത്തത്തിൽ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ നിത്യ ദൈന ജീവി ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ സിനിമ ആയിട്ടൊക്കെ വരുന്നത് അതുകൊണ്ട് ഈ ഫാഷൻ ഷോകളിലൊക്കെ മെയ്നായിട്ടും മോ വരുന്നതെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് വസ്ത്ര ധാരണ രീതിയൊക്കെയാണ് ഇപ്പം ട്രെഡിഷനായിട്ട് സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് അതൊക്കെ ഒരു ഇപ്പം അതൊന്നും കാണാനില്ലാത്തതു കൊണ്ട് അതൊക്കെ ഒരു പുതിയ പുതിയ കാര്യങ്ങളായിവിടെ അതൊക്കെ വരാറുണ്ട് പിന്നെ കൂടുതലായിട്ടും എന്താ ഈ കഥകളിയൊക്കെ അത് മിക്ക എടുത്ത് ഒരു മെയ് മെയ്നായിട്ടത് അവതരിപ്പിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ശൈലിയിലും കാര്യങ്ങളിലും ആയതു കൊണ്ട് അതിപ്പം വലിയ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിലും അല്ലെങ്കിൽ ഈ ഇതൊന്നും കണ്ടട്ടില്ലാത്ത ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവർ രുടെയടുത്ത് പിന്നെ അങ്ങനെയൊക്കെ അവതരിക്കുമ്പോൾ അതൊക്കെ ഒരു സിനിമയിലും പരസ്യരൂപത്തിലൊക്കെ വരാറുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക കലകളും കരകൗശല വസ്തുക്കളും ഒക്കെയായിട്ട് വരുന്നുണ്ട്